വയനാടിനെ സംബന്ധിച്ചെടുത്തോളം കൃഷി ഒരു മുഖ്യ ഘടകമാണ് അതിൽ വാഴ കാപ്പി ഇഞ്ചി കുരുമുളക് കാലി വളർത്തൽ ഇതൊക്കെയാണ് വയനാടിനെ വയനാടിനെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കാരണം ഇവിടെയുള്ള സാധാരണ ആൾക്കാരും ഭൂരിപക്ഷ ആൾക്കാരും ആ ഉപജീവനമാർഗ്ഗം ഉപജീവനമാർഗ്ഗം കണ്ടെത്തുന്നത് കൃഷിയിലൂടെയും കാലി വളർത്തലിലൂടെയുമാണ് അതായത് പണ്ടു പല രീതിയിലുള്ള കൃഷികളുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി കുറച്ചുംകൂടി അതായത് കൃഷി ചെയ്തിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ വാഴ ചില സമയം വാഴ വച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥ കാറ്റുവരുന്നു വില കുറയുന്നു അതിൽ നിന്നൊക്കെ മാറി ഇപ്പം കുലയ്ക്ക് വിലയുണ്ട് അതേപോലെതന്നെ ഇഞ്ചി കാപ്പി കുരുമുളക് പാലിന് പാലുൽപ്പാദന വസ്തുക്കൾ കൂടി പാലുംകൊണ്ട് പലതരം ഉൽപ്പന്ന വസ്തുക്കൾ ഉണ്ടാക്കാൻ കുറെ യൂണിറ്റുകൾ വന്നതുകൊണ്ട് പാലുൽപ്പാദനം കൂടി പിന്നെ റബ്ബർ റബ്ബർ ഒരു രണ്ടായിരം കാലഘട്ടം തൊട്ടാണ് വയനാട്ടിൽ റബ്ബർ അതിൽ കൂടുതലായി വച്ചുപിടിപ്പിക്കാൻ തുടങ്ങിയത് അതിനു മുൻപ് ബാക്കി സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിലും വയനാട്ടിൽ വളരെ കുറവായിരുന്നു റബ്ബർ വയ്ക്കലൊക്കെ രണ്ടായിരം തൊട്ടാണ് റബ്ബർ കൂടുതലായിട്ടും വയനാട്ടിൽ വച്ചു പിടിപ്പിച്ചത് അതു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്